അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒൻപത് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എട്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന്